എനിക്ക് പ്രിയങ്കരനായിട്ടുള്ള ഒരു മലയാളത്തിലെ എഴുത്തുകാരനാണ് കെ പി കേശവ മേനോൻ എനിക്ക് ഇദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടമായത് ഇദ്ദേഹത്തിൻ്റെ പ്രഭാദീപം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പതിപ്പ് വായിച്ചപ്പോഴാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു രചനയാണ് കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാൻ ചില മാർഗ്ഗനിർദേശങ്ങൾ തരുന്ന ഒരു ബുക്കാണിത് കെ പി കേശവമേനോൻ അതീവ ഗംഭീരമായിട്ട് അതായത് ഒരു ഒരു ടീനേജിലുള്ളൊരു കുട്ടിക്ക് വായിച്ച് വായിക്കേണ്ടൊരു ബുക്കാണ് കാരണം ഇതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രഭാദീപം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട് ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എമ്പത്താറിൽ പാലക്കാടിലാണ് ജനിച്ചത് അതുപോലെതന്നെ ഇദ്ദേഹം കേരള സാഹിത്യ അക്കാദമി വർക്കിംഗ് പ്രസിഡൻ്റ് ആണ് അതുപോലെതന്നെ ഇയാൾ ഇദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെതന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെലോഷിപ്പ് ഒക്കെ ഇദ്ദേഹത്തിന് ഉണ്ട് അതുപോലെതന്ന ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ഒക്കെ ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് എനിക്ക് പ്രിയങ്കരനാവാൻ കാരണം പ്രഭാദീപം എന്നുപറഞ്ഞിട്ടുള്ള ബുക്കാണ് കാരണം അതിലെ നമുക്കോരോ ഭാഗങ്ങളും ഇപ്പോൾ ജീവിതത്തെ നോക്കി കാണണ്ടെ കാണേണ്ടതെങ്ങനെ വീട്ടിലൊരു കുട്ടി എങ്ങനെ ആയിരിക്കണം ഹോസ്റ്റലിൽ ഒരു കുട്ടി എങ്ങനെ ആയിരിക്കണം അങ്ങനെ ഓരോ ഭാഗവും വളരെ ഒരു ടീനേജിലുള്ളൊരു കുട്ടിക്ക് ജീവിതത്തിലോട്ട് പകർത്താൻ ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടം